നാട്ടിലെ റസ്റ്റോറൻറ്റ്കൾ വർദ്ധിച്ച് വരുന്നത് കാർഷിക മേഖലയെ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം ഇപ്പോൾ ആർക്കും കൃഷി ചെയ്യാനായിട്ട് താല്പര്യമില്ല സാമ്പത്തിക നേട്ടമാണ് എല്ലാവരും മുന്നീ കാണുന്നത് അപ്പോൾ കർഷകരെ ഒത്തിരി കഷ്ടപ്പാടുള്ളത് കൊണ്ട് അതിൽ നിന്നും പിന്മാറി ഇപ്പോൾ റസ്റ്റോറൻറ്റ്കൾ തുടങ്ങുകയാണ് അപ്പം അതിൽ നിന്നും അവർക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം കിട്ടുന്നുണ്ട് പക്ഷേ കർഷകരുടെ ഒരു ജീവിതം ആ ജീവിതം ഈ നമ്മുടെ നാട്ടിൽ ഇല്ലാതെ വരും